എന്നുവച്ചു ഞാൻ തീർച്ചയായും സഹായിക്കുന്നുണ്ട് യൂ ട്യൂബ് യൂ ട്യൂബിലിപ്പോള് ഞാൻ മെയിനായിട്ട് കാണുന്നത് എം ഫോർട്ടെക്കെന്നു പറയുന്ന ഒരു ചാനലാണ് ആ ചാനലിലാവുമ്പോള് കുറേ ക്രാഫ്റ്റും വ്ളോഗും എല്ലാം ഉണ്ടാവും എന്നാലും ക്രാഫ്റ്റൊക്കെ ആയിട്ടാണു കൂടുതലും വരുന്നത് അതെനിക്കു ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ ആരെങ്കിലും ഇങ്ങനെ കഴിവുള്ളവരൊക്കെ ഉണ്ടെങ്കില് അവരൊന്ന് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തോ വീഡിയോ എടുത്ത് അങ്ങനെ എന്തേലും കയറ്റിവിട്ടുകഴിഞ്ഞാല് പെട്ടെന്ന് വൈറലാവും അവര് വൈറലായാല് എങ്ങനെയാണെങ്കിലും രക്ഷപ്പെടും സോഷ്യൽ മീഡിയ എന്തായാലും വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പാണ് യൂ ട്യൂബില് എനിക്കിഷ്ടപ്പെട്ട ചാനല് എം ഫോട്ടെക്കാണ് കുറേ ചാനലുകളുണ്ട് ക്രാഫ്റ്റ് വീഡിയോ തന്നെ ചെയ്യുന്നേ പിന്നെ ആർട്ട് വീഡിയോ ചെയ്യുന്ന ഷോർട്സായിട്ട് യൂ ട്യൂബിലിടുന്ന ഒരു ബ്രോയിനെ എനിക്കറിയാം ആ ചാനലിൻ്റെ പേരു ഞാന് മറന്നുപോയി എന്നാലും ആ ബ്രോയും അതേപോലെ നല്ല കിടിലനായിട്ടു വരയ്ക്കും ഇതൊക്കെ കാണലുണ്ടു ഞാന് അവർക്ക് അതേപോലെ തന്നെ അതിന് ആ ചാനലില് വീഡിയോയ്ക്കൊക്കെ മില്യൻസ് ഓഫ് ലൈക്കും വരും അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും സോഷ്യൽ മീഡിയ എന്തായാലും സഹായിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് അവരൊക്കെ മുമ്പ് മുന്നേറിവരുന്നത് ഈ നേട്ടം എന്നിട്ട് വേറെ എവിടെയും പോയി ഇങ്ങനെ അറിയപ്പെടാൻ വേറെ വഴികളൊന്നുമില്ലല്ലോ അപ്പോള് എന്തായാലും സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ട്